എനിക്ക് കഴിവുണ്ട് അതായത് എനിക്ക് പല കഴിവുമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിവുകൾ ഇല്ലാത്ത മനുഷ്യന്മാര് വളരെ കുറവാണ് പഠിക്കുവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവലില് ഒക്കെയായിരുന്നു ഞാൻ പഠിക്കുകയുള്ളു അതിൽ കൂടുതൽ ഒന്നും പഠിക്കുകയില്ല ഇപ്പോൾ ഫുൾ എ പ്ലസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നും എനിക്ക് വലിയ മൈൻ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം അങ്ങ് പാസ്സാവണം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും താല്പര്യം ഡ്രോയിങ്ങിനോടായിരുന്നു ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടാണ് നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഓരോ സാധനങ്ങള് ഒപ്പിയെട് ഒപ്പിയെടുത്ത് അത് വീട്ടില് വന്നിട്ട് ചിത്രം വരയ്ക്കാനൊക്കെ അതായത് ഓരോ സ്ഥലങ്ങളും സ്ഥലങ്ങളിലും പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലൊ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതായത് അതെപ്പഴും അത് മനസിൽ തന്നെ ഉണ്ടാകും പിന്നെ ഞാൻ വീട്ടില് വന്നിട്ട് ഒരു പേപ്പർ എടുത്ത് നല്ല സമാധാനത്തോടെ അത് ചിന്തിച്ചുകൊണ്ട് വരയ്ക്കും അത് വരച്ച് കഴിയുമ്പോൾ നല്ലൊരു അതായത് എന്താ പിന്നെ ഔട്ട് കം കിട്ടും അപ്പോൾ അത് പിന്നെ ഇതാ വരച്ചതൊക്കെ എല്ലാവരേയും കാണിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും പറയും ആ അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട് വരയില് നല്ലൊരു കഴിവുണ്ടെന്നൊക്കെ പറയും അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് പിന്നെ ചിത്രം വര പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഓൺലൈൻ വഴിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്